ഓ ഹലോ കേൾക്കാവോ ആ പബ്ലിക് ലൈബ്രറിയല്ലേ ആ എ ഒരു ഒരു ബുക്കിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടീട്ടായിരുന്നു അവിടെ ചെമ്മീൻ എന്ന് പറയുന്ന ബുക്കോ ആരാചാർന്ന് പറയുന്ന ബുക്കോ ഇപ്പോൾ അവൈലബിളാണോ എനിക്കൊരൂ മൂന്ന് നാല് ദിവസത്തിനകത്ത് വേണവായിരുന്നു ഒരു പ്രോജക്റ്റിന് വേണ്ടീട്ട് ആ ബുക്കുകളെ പറ്റി ഒന്ന് അറിയണവായിരുന്നു അതിന് വേണ്ടീട്ടാണ് ആ ഇപ്പോൾ രണ്ട് ദിവസത്തിനകത്ത് ആരുടെ കയ്യിലാണ് എന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം എടുക്കുവായിരിക്കും അവരുടെ കയ്യീന്ന് ഇത് തിരിച്ച് ലൈബ്രറിയിലേക്കെത്താൻ

ആ മെമ്പർഷിപ്പ് ഐ ഡി നമ്പറും പേരും എൻ്റെ മെമ്പർഷിപ്പ് ഐ ഡിയും ഞാൻ പറഞ്ഞ് തന്നാൽ മതിയോ അപ്പോൾ അതിനകത്ത് തന്നെ എൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ആ എൻ്റെ പേര് ആദിത്യാന്നാണ് മെമ്പർഷിപ്പ് ഐ ഡി ടീ സീറോ മൂന്ന് ഒന്ന് നാല് ആ ഓക്കെ മാം ഓക്കെ താങ്ക് യൂ